ഞാനൊരു ഗ്രാമപ്രദേശത്താണ് താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻറേതായ സൗകര്യം കുറവുകൾ എല്ലാം ഉണ്ട് പുറത്തൂടെ നമുക്ക് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ അതിൻറേതായ സമയമെടുക്കുകയും അതിൻറേതായ പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ട് പെട്ടന്ന് ആർക്കെങ്കിലും വയ്യാതാവുകയാണെങ്കിൽ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്ന് പറയണത് ഒരു ദൈർഘ്യമേറിയ കാര്യമാണ് കാരണം ഇങ്ങോട്ടുള്ള വീട്ടിനടുത്തോട്ടുള്ള റോഡ് വളരെ മോശമാണ് പെട്ടന്നൊന്നും വലിയ വണ്ടികൾ വാഹനങ്ങൾ വിളിച്ചാൽ പെട്ടന്നൊന്നും വരാൻ അവർക്ക് സമ്മതം അറിയിക്കാറില്ല അങ്ങനെ മോശം ആംബുലൻസ് കണക്റ്റിവിറ്റി ആണ് ഞങ്ങളുടെ ഈ ഒരു പ്രദേശത്തുള്ളത് പെട്ടന്ന് വയസ്സായ ആർക്കെങ്കിലും വയ്യാതാവുകയാണെങ്കിൽ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയെന്നു പറയണത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സ്വന്തമായിട്ട് വാഹനം ഉണ്ടെങ്കിൽ പോലും ഇവിടുത്തെ റോഡ് അത്ര ശരിയല്ലാത്തതുകൊണ്ട് നമുക്ക് കൊണ്ടുപോകാൻ താമസമേൽക്കുകയും ഒരുപാട് ആ ഒരു വ്യക്തി ഒരുപാട് ക്ഷീണിതയാവുകയും ചെയ്യാറുണ്ട് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഉൾപ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്ക് അതിൻറേതായ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ ആംബുലൻസിന്റെ കാര്യം അല്ല മറ്റ് പല കാര്യങ്ങളിലും വൈദ്യുതിയുടെ കാര്യങ്ങളിലായിക്കോട്ടെ ഗ്രാമപ്രദേശത്തുള്ളവർക്ക് കുറച്ച് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്